കുഞ്ഞ് കന്നുകാലികളാകുമ്പോഴത്തേക്കും അതുങ്ങൾ ഇങ്ങനെ തുള്ളി ചാടി നടക്കുന്ന ഒരു പ്രായമാണ് അപ്പം അതുങ്ങൾ തുള്ളി ചാടി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ചിലപ്പം വെള്ളത്തിലും അവിടെ ഇവിടെയുമൊക്കെ വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ കൂടെ നടന്നു അത് എങ്ങോട്ടൊക്കെ ആണ് പോകുന്നത് എന്നൊക്ക നോക്കി നടക്കുക പിന്നെ അതുങ്ങൾക്ക് വേണ്ട പാൽ കൊടുക്കേണ്ട സമയാവുമ്പം പാൽ കൊടുക്കുക പിന്നെ പുല്ലൊക്കെ തിന്നാറാവുന്ന സമയത്ത് നമ്മൾ പുല്ലും അതിൻ്റെ പിന്നെ വെള്ളത്തിൽ കലക്കി കാടിയും അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുങ്ങൾക്ക് പ്രതിരോധ ശേഷി ഉണ്ടാകാനുള്ള ഇൻജക്ഷൻ നമ്മൾ അത് കൊടുത്ത് അത് വേണ്ട രീതിയിൽ അതുങ്ങൾക്ക് ആ ഇഞ്ചക്ഷൻ എടുക്കേണ്ട സമയത്ത് തന്നെ കൊടുത്ത് മാത്രമേ അതുങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം സുരക്ഷിതമായിട്ട് പോകാൻ സാധിക്കത്തുള്ളു അപ്പോൾ അതുങ്ങൾ നമുക്ക് എത്ര കെയറ് കൊടുക്കാമോ അത്രയും നമ്മൾ കെയറ് കൊടുത്ത് വേണം അതുങ്ങളെ വളർത്താനായിട്ട് അതുങ്ങൾ പോകുന്ന വഴികൾ ചിലപ്പം അതുങ്ങൾക്ക് അറിയത്തില്ല റോഡാണോ വഴിയാണോ എന്നൊന്നും നമ്മൾ അതുങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം പിന്നെ അല്ലെങ്കിൽ നമ്മൾ അതുങ്ങളെ ചെറിയ കയർ കെട്ടി നമ്മൾ എവിടെയെങ്കിലും ചെറുതായിട്ട് തുള്ളി ചാടി നടക്കുന്ന പ്രായമാണേ തുള്ളി ചാടി നടക്കാൻ തന്നെ നമ്മൾ വിടണം നമ്മൾ അതുങ്ങളെ കെട്ടി ഇടരുത് നമ്മൾ അതുങ്ങൾക്ക് വേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്തു നമ്മൾ അതുങ്ങളെ നോക്കണം നമ്മൾ നോക്കി നടന്നു അതുങ്ങൾക്ക് വേണ്ട എല്ലാം കൊടുത്ത് പിന്നെ കൂടുതലും അതുങ്ങൾക്ക് പ്രതിരോധ ശേഷിക്കുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുക വാക്സിനേഷൻ എടുക്കുക പിന്നെ അതുങ്ങൾക്ക് പിന്നെ വൈറ്റമിൻ കൊടുക്കാറുണ്ടെങ്കിൽ അത് കൊടുക്കുക അങ്ങനെയുള്ള എല്ലാം നമ്മൾ മൃഗാശുപത്രി വഴിയും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് മൃഗാശുപത്രിയിൽ അറിയിച്ചു അതിന് വേണ്ട പരിചരണങ്ങളെല്ലാം നമ്മൾ കൊടുക്കേണ്ടതാണ് അതുങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല നമ്മൾ അതുങ്ങൾടെ കാര്യങ്ങൾ അറിഞ്ഞു നമ്മൾ അത് ചെയ്യണം നമ്മൾ എന്ത് മാത്രം നമുക്ക് അതുങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മൾ അതറിഞ്ഞ് അതുങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം പിന്നെ അതുങ്ങൾ പോകുന്ന വഴികളെല്ലാം നല്ല പോലെ ശ്രദ്ധിച്ചു അതുങ്ങളെ പരിപാലിച്ചു വെയിലത്തും മഴയത്തും ഒന്നും വിടാതെ അതുങ്ങളെ സൂക്ഷിച്ചു നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമാണ് സൂക്ഷിച്ചു കൊണ്ട് പോകണം അതുങ്ങളെ പിന്നെ വെയിലോ മഴയോ ഒക്കെ കൊള്ളുമ്പോൾ നമ്മൾ അതുങ്ങളെ സംരക്ഷിച്ചു മുന്നോട്ട് കൊണ്ടു പോകണം